ഇത് കാർ പ്ലാസയാണോ

ആണോ അപ്പോള് നിങ്ങളുടെ സർവീസുകൾ എന്തൊക്കെയാണ് അപ്പോള് എന്റെയൊരു കാര് ഉണ്ട് മൂന്ന് കാറുകളാണ് അപ്പോളതില് ആ അതിൽ രണ്ട് കാറുകൾ എസ് യു വി ആണ് ഒരെണം ഒരു സെഡാനുമാണ് അത് എനിക്ക് രണ്ട് നിസ്സാൻ പെട്രോളാണുള്ളത് പിന്നെ ഒരു സെഡാനായിട്ട് എനിക്ക് വോൾസ്വാഗൻ വെർട്ടസാണ് അപ്പോൾ എനിക്ക് ഇത് ഭയങ്കരം വിലപിടിപ്പുള്ള കാറുകളാണ് അപ്പോൾ എനിക്ക് ഇതെങ്ങനെയാണ് നിങ്ങൾ വാഷ് ചെയ്യുന്നതെന്നും അതെത്ര ദിവസമെടുക്കുമെന്നും എനിക്കറിയണം

അപ്പോള് നിങ്ങളുടെ പ്രൈസിങ്ങ് എങ്ങനെയാണ് അതോ നിങ്ങൾ കഴിഞ്ഞിട്ടാണോ പറയുക ആ ആണോ

അപ്പോള് എത്ര ദിവസമെടുക്കും ഏകദേശം ടൂ ഡേയ്സ് അപ്പോള് എൻറ്റെ ഈ മൂന്ന് വണ്ടിയും നിങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യുമോ അതിന് ആണോ അപ്പോള് ഈ ഇൻറ്റീര്യർ ഡീറ്റെയിലിങ്ങിന് എത്ര ദിവസമെടുക്കും ആണോ അപ്പോൾ നിങ്ങൾ

ഞാനിന്ന് നിങ്ങൾക്ക് വല്ല മെമ്പർഷിപ്പ് പ്ലാനുകളുണ്ടോ കാരണം എനിക്ക് കുറേ വണ്ടികൾ എന്തൂസിയസ്റ്റാണ് കാര് എന്തൂസിയസ്റ്റാണ് അപ്പോള് എനിക്ക് കുറേ വണ്ടികളുണ്ട് പ്രത്യേകിച്ച് വിൻറ്റേജ് വണ്ടികൾ അതെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് എനിക്കാഗ്രഹമുണ്ട് കാരണം അതെല്ലാം സർവീസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അതിനുള്ള വല്ല പ്രത്യേക പാക്കേജസോ അതോ മെമ്പർഷിപ്പുകളോ എനിക്ക് ഓക്കേ ആ ഓക്കെ എന്നാല് താങ്ക്സ്